അലോപതി ആയുർവേദം ഹോമിയോപ്പതി എന്നിവയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആയുർവേദ ചികിത്സകളാണ് കാരണം ആയുർവേദം കൂടുതലും പച്ചമരുന്നുകളും പ്രകൃതിയിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അലോപത മരുന്നുകൾ കഴിച്ചാൽ സൈഡ് എഫക്റ്റുകൾ കൂടുതലാണ് അത് പലതും കെമിക്കൽസ് ചേർത്താണ് ഉണ്ടാക്കുന്നത് തന്നെയും അല്ല പലപ്പോഴും ലഭ്യമാകുന്ന അലോപ്പതി മരുന്നുകൾ വിശ്വാസ്യത വളരെ കുറവാണ് എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റുകൾ കാണപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് മരുന്നുകൾക്ക് വില കൂടുതലാണ് ലഭ്യത ലഭ്യത അധികമാണെങ്കിലും വില വളരെ കൂടുതലാണ് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അതുവഴിയായിട്ട് ഉണ്ടാകുന്നു പെട്ടെന്ന് കുറയും എന്നല്ലാതെ ആ രോഗത്തെ പൂർണമായിട്ടും പരിഹരിക്കുവാൻ പലപ്പോഴും അലോപ്പതി മരുന്നുകൾക്ക് കഴിയാറില്ല ആയുർവേദമാണെങ്കിൽ അല്പം താമസമുണ്ടെങ്കിലും കഴിച്ചത് മാറുന്ന ഒരു അവസ്ഥയാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ആയുർവേദം കഴിക്കുവാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്